ആ പറഞ്ഞോളൂ ആ ഇവിടെ എല്ലാ മോഡൽ ഷൂസൂമുണ്ട് ക്രോക്സ് ഉണ്ട് സാധാ ചെരുപ്പുകളുണ്ട് ഏതാണ് മാഡത്തിന് വേണ്ടത് ഷൂവിൻ്റെ ഒക്കെ റേറ്റ് എന്തായാലും ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലാണ് വിൽക്കുന്നത് ക്രോക്സ് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ് ആ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അതിനൊക്കെ ഇരുന്നൂറ് മുന്നൂറ് ആ മുന്നൂറ് നാനൂറ് അങ്ങനെയൊക്കെ ഒരു റേറ്റിലാണ് വിൽക്കുന്നത് ആ ഷൂസ് വേണേൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ബ്രാൻഡ് നമ്മൾ കൊണ്ട് പോകുന്നത് ആ ഇ അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട നിറം ഏത് വേണേലും സെലക്ട് ചെയ്യാം ആ ഉണ്ട് ഉണ്ട് എല്ലാ ടൈപ്പ് കമ്പനിയുടേയും ഷൂസ് നമുക്കിവിടെ അവൈലബിളാണ് ആ മാഡത്തിൻ്റെ സൈസ് എത്രയായിരുന്നു ആ ഇത് ഇത് ഷൂസ് നമുക്ക് അവൈലബിൾ അല്ല മാം വേണേൽ വരുത്തിക്കാം ഏയ് അത് അവൈലബിൾ അല്ല മാഡം ഒരു പത്തിഞ്ച് അടുത്ത് ആണ് ഇപ്പം അവൈലബിൾ മാഡത്തിന് നിർബന്ധമാണേൽ ഞങ്ങൾ വരുത്തിച്ചു തരാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട് മാഡം സാധാരണ ഷൂസിൻ്റെ റേറ്റ് ഒരു നാനൂറ് അഞ്ഞൂറ് ആ റേറ്റാണ് അപ്പോൾ വരുത്തിക്കുവാണെങ്കിൽ അതിൽ കൂടും ഒരു ഇരുന്നൂറൊക്കെ ആകും ആ അതെ മാഡം ഞങ്ങൾക്ക് പുറത്ത് കമ്പനി സ്വന്തമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ അയച്ച് തരാം മാം മാഡത്തിൻ്റെ നമ്പർ ത് ദേ ഈ നമ്പരല്ലേ മാഡം അയച്ച് തന്നേക്കാം ആ ഉണ്ട് മാഡം ആ അങ്ങനെ കളറും സൈസും പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചയ്യാ എളുപ്പമായിരുന്നു ഇവിടെ ബ്ലൂ വൈറ്റ് ബ്ലാക്ക് റെഡ് ഇതൊക്കെ ആണ് നമ്മൾ കളർ അവൈലബിളായിട്ടുള്ളത് അപ്പം എല്ലാം ഉണ്ട് മാഡം ആ ഉണ്ട് മാഡം ആ അതെ